പാലക്കാട് ജില്ലയില് ആഘോഷിക്കുന്നൊരു പ്രധാനപ്പെട്ട ഉത്സവപരിപാടിന്താന്ന് വെച്ചാൽ ക്രിസ്മസാണ് ക്രിസ്മസിന് നമ്മള് യേശുജനിച്ച ദിവസായിട്ടാണ് കാണുന്നത് എല്ലാ പള്ളികളിലും എല്ലാപള്ളികളിലും ക്രിസ്മസിൻ്റെ തലേദിവസം കരോള് വരുന്നു ക്രിസ്ത്മസ് പപ്പ വരുന്നു ഗിഫ്റ്റുകളായിട്ട് വരുന്നു കേക്കുകൾണ്ടാക്കുന്നു പല ക്രിസ്ത്യൻസ് വീടുകളിലും കേക്കുകളുണ്ടാക്കുന്നു അവ എല്ലാവർക്കും നൽകുന്നു അങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടൂകൂടീട്ട് കാണുന്നൊരുത്സവാണ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ക്രിസ്മസ് ക്രിസ്മസിന് നമ്മള് ഏറ്റവും ഹാപ്പിയോടുകൂടീട്ടാണ് കാണുന്നത് അവര് ക്രിസ്മസിന് പുൽകൂടുണ്ടാക്കുന്ന് ക്രിസ്ത്യൻ വീടുകളില് ക്രിസ്ത്യൻ വീടുകളില് മാത്രല്ല ഇന്നെല്ലാവീടുകളിലും ഇന്നധികം എല്ലാവീടുകളിലും ഇങ്ങനെ പുൽകൂടുകളക്കെണ്ടാക്കുന്നുണ്ട് പിന്നെ നക്ഷത്രം സ്റ്റാർ തൂക്കുന്നുണ്ട് ആ സ്റ്റാർ തൂക്കിയിടുന്ന ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ഈ സ്റ്റാറുകളും പുൽകൂടുകളും ഉണ്ടാക്കാന് റെഡിയാണ് അവയൊക്കെയുണ്ടാക്കി നമ്മള് യേശുവിൻ്റെ യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുകയാണ് ഈ ക്രിസ്മസിലൂടെ ചെയ്യുന്നത്